ഇന്ന് മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നത് ഏറ്റവും ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് കാരണം ഈ മൃഗങ്ങളെയും ആളുകൾ ഏതൊരു ജീവിയേയും വളർത്താം വളർത്തി കഴിഞ്ഞ് ഒരു പരിധി കഴിഞ്ഞ് അവയെ മുന്നോട്ട് പ്രായാധിക്യവും മറ്റ് ഇതുവും നമുക്ക് പ്രയോജനമല്ലാത്തവയെ ഒഴിവാക്കുവാനായിട്ട് പല മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അപ്പം അവ ഇവയെ മറ്റ് ഇടങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും കൊണ്ട് പോവുമ്പം പലപ്പോഴും ഏറ്റവും കൂടുതൽ കണ്ട് വരുന്നത് അശ്രദ്ധയോടെ ഉള്ള കൊണ്ടുപോകുമ്പോഴും മൃഗങ്ങളെ കുത്തി നിറച്ച് ആര് കണ്ടാലും ദയനീയാവസ്ഥ തോന്നുന്ന രീതിയിലാണ് ഇവയെ കൊണ്ട് പോവുക നമ്മൾ കാണാറ് അതിനെ കൂടുതലും വണ്ടികളിൽ തിങ്ങി നിറഞ്ഞ് ശ്വാസവും കിട്ടാതെ വായുവും ഒന്നും കിട്ടാത്ത രീതിയിൽ വളരെ ദയനീയമായ രീതിയിൽ കൊണ്ടുപോകുന്നു അതിന് ഉപരി വളരെ സംരക്ഷണമെന്ന രീതിയിൽ കൂടുതൽ ഇടമുള്ള പല പല ഭാഗങ്ങളിലേക്ക് ഇവ ഇവയെ കൊണ്ട് പോവുകയും അവ മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന രീതിയിൽ ഇതിനെയൊക്കെ നിയന്തിക്കാനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റിന്റെയോ പഞ്ചായത്തിന്റെയോ ഭാഗത്തുനിന്ന് ശരിയായിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഫലപ്രദമാകുന്ന മറ്റു ഇടങ്ങളിൽ നമ്മുടെ നാടിനെക്കാളും മറ്റ് രാജ്യങ്ങളിലെ സ്ഥലങ്ങളിലിത് കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് നമ്മുടെ ഇടങ്ങളിലാണിത് കൂടുതലും മോശമായ രീതിയിൽ ഈ വക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നായിട്ട് നമ്മൾ കാണുന്നത് വളർത്തുന്ന എതൊരു ജീവിയേയും വളർത്തുന്ന ആളുകൾക്കേ അറിയുകയുളളൂ അതാ ജീവി ഏത് മൃഗമാണ് കൂടുതൽ മനുഷ്യനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ശല്യം ചെയ്യുക എന്നുള്ളത് അതിനെ അതിൻ്റെ പ്രത്യേകമായ രീതിയിൽ കൈകാര്യം ചെയ്ത് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഓരോരുത്തരുടേയും ഉത്തരവാദിത്തത്തിൽ പെട്ടൊരു കാര്യം ആർക്കും പ്രയോജനമുള്ള രീതിയിൽ വളർത്തുകയും അവർക്ക് മറ്റുള്ളവർക്കും അയൽവാസികൾക്കും പരിസ്ഥിതിക്കും ദോഷമുണ്ടാകാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം മതിയായ സ്ഥലവും വിസ്ത്തീർണവും ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ജീവികളെ വളർത്തൂ ഇല്ലെങ്കിൽ കുറച്ച് ജീവികളെ ഓരോരുത്തരുടേയും സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് അവയെ വളർത്തുക എന്നുള്ള കർഷകന്റേയും ജീവിയെ വളർത്തി അതിനെ തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുപ്പും പ്രധാനമാണ് കാരണം ഏത് ജീവിയെ ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൃഗങ്ങളെ വളർത്തുക കൂടുതൽ നല്ലതാ അപ്പം മൃഗങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ പരിപാലിക്കാനും അവറ്റകളെ അവയെ പരിചരിച്ച് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കും ദോഷമല്ലാത്ത രീതിയിലും സമൂഹത്തിനും നാടിനും നന്മക്കും ഒതുങ്ങുന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ട് പോകാൻ സാധിക്കും ഏതൊരു കാര്യവും ഏറ്റെടുക്കുന്നതിന് മുൻപ് അത് എങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദവും നാശവും ഉപകാരപ്രദമായ രീതിലും മറിച്ച് നാശം വരാത്ത രീതിലും എങ്ങനെയാണെന്നുള്ള ശരിക്കുമുള്ള അന്വേഷണങ്ങളും ഇതും പ്രകടനങ്ങളും നടത്തിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും ഇല്ലെങ്കിൽ അത് നന്മയെക്കാളുപരി ദോഷമായിട്ട് ഇരിക്കുകയും ഭവിക്കുകയും ചെയ്യും അങ്ങനെ മൃഗങ്ങളെ നാടിൻ്റെ സമ്പത്തായിട്ട് സമൂഹത്തിൻ്റെ നമ്മൾ മനുഷ്യരെങ്ങനെ കൈകാര്യം ചെയ്യുന്നോ ആ ഒരു രീതി മൃഗങ്ങളെയും പരിപാലിക്കുകയും അവയ്ക്കും മനുഷ്യനെപ്പോലെ ഉള്ള രോഗങ്ങളും മറ്റും വരുന്നുവെന്നുള്ള രീതിയിൽ കരുതലുകളുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വേണ്ട രീതിയിൽ പരിചരിച്ചവയെ മുന്നോട്ട് കൊണ്ടുപോവുകയും നാടിനും സമൂഹം നന്മ വരുകയും ചെയ്യുന്നെങ്കിൽ മൃഗങ്ങളെ പരിപാലിക്കുകയും ചെയ്യാൻ സാധിക്കുകയും ചെയ്യും